അപ്പോൾ എൻ്റെ കാരണവരെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛച്ഛനാണ് അപ്പോൾ അച്ഛച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക വലിയൊരാളാണ് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണ്ടേ പറയുമായിരുന്നു നിങ്ങൾ അതായതിപ്പോൾ ഞാൻ വെച്ചത് നിങ്ങൾ നോക്കണ്ട ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ വീടൊക്കെ വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് അടക്കം വെച്ചത് സംഭവം പുള്ളിക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് ആ ടൈമിലൊക്കെ പുള്ളി ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് വന്നതാണ് അപ്പോൾ ഈ കോഴിക്കോട്ടേക്ക് അപ്പോൾ അവിടെ നിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് വന്ന് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെയാണ് പുള്ളി നല്ല രീതിയിലൊരു നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ ഒരു വീട് വെച്ചത് പോലും പുള്ളി അങ്ങനെയാണ് ഒരു പത്ത് രൂപ കയ്യിലില്ലാണ്ടാണ് പുള്ളി വന്നത് അപ്പോൾ ആ ഒരു പുള്ളീൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയതാണ് ഇപ്പോൾ എൻ്റെ അച്ഛച്ഛൻ്റെ പേരെന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ എന്നാണ് അപ്പോൾ പുള്ളിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു കൃഷി എടുക്കുകയാണെങ്കിൽ ആൾക്കാരെ എങ്ങനെ അത് പ്രതിഫലിപ്പിച്ച് എടുക്കാമെന്നും എല്ലാം പുള്ളിക്കറിയാവുന്നൊരു കാര്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ വ്യക്തിയാണ് പുള്ളി പറയുമായിരുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ ജീവനോടെ ഇല്ല പക്ഷെ പുള്ളി പോയി കഴിഞ്ഞാൽ നിങ്ങളനുഭവിക്കും കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണ്ടത്തൊരു ആളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നൊന്നര ആളാണ് കാരണം ഈ സമയത്തൊന്നും നമ്മളെപ്പോലെ ഉള്ളവർക്കും ഇപ്പോൾ എൻ്റെ അച്ഛന് പോലും അതൊന്നും നടക്കില അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ്